നല്ല ചിത്രങ്ങളൊക്കേ പകർത്താൻ വേണ്ടി ഞാൻ പോകാറ് കൂടുതലും അതായത് നമുക്കിവിടെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ചേക്കാടീന്നു പറഞ്ഞ സ്ഥലത്ത് അവിടെ അടിപൊളി വ്യൂ ആണ് ഫുള്ള് തേക്കിൻറ്റെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് തേക്ക് തേക്ക് ഉണ്ടാകുമ്പോൾ പൊതുവേ ചെറിയ ചെറിയ പുല്ലുകൾ മാത്രമല്ലേ അതിൻറ്റടിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തേക്കിൻറ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കേ അടിപൊളിയാണ് അതേപോലെ തിരുനെല്ലി പിന്നേ അപ്പപ്പാറ ഫോറസ്റ്റ് അവിടെയൊക്കേ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കേ അടിപൊളി സ്ഥലമാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി അമ്പലത്തിൻറ്റെ അവിടെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പുഴകള് അങ്ങനത്തേ സ്ഥലങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഒക്കെ അടിപൊളിയാണ് പിന്നേ അതേപോലെ പഴശ്ശി പാർക്ക് മാനന്തവാടി അവിടെയൊക്കേ ഫോട്ടോ എടുക്കാൻ അടിപൊളി വ്യൂ ആണ് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ പുഴ തീര പുഴേൻറ്റെ തീരത്ത് അങ്ങനെയുള്ള സ്ഥലത്തൊക്കേ നമുക്ക് അതായത് നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ പക്ഷേ നമുക്കത് വേറൊരു രസമായി നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നതിനേക്കാളും രസമായിരിക്കും അത് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും അതേപോലെ ഈ പോസ്റ്റ് വെഡ്ഡിംങ്ങും പ്രീ വെഡ്ഡിംഗിനും മറ്റേണിറ്റി ഷൂട്ടിനും പിന്നേ കുട്ടികളുടെ ഒന്നാം വയസിൻറ്റെ പിറന്നാള് അങ്ങനെത്തേതിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൂടുതല് പ്രകൃതി രമണീയമായ സ്ഥലത്ത് വച്ച് ഫോട്ടോ എടുക്കുമ്പോഴായിരിക്കും നമുക്കതിൻറ്റെ ഭംഗി കൂടുതലും അറിയാൻ പറ്റുന്നത്